ശിശുക്കൾക്ക് അതിൻ്റെ ആദ്യവർഷത്തിൽ അനുഷ്ഠിക്കുന്ന വ്യത്യസ്ത ആചാരങ്ങൾ ഓരോ പ്രദേശത്തിനനുസരിച്ചും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് അനുഷ്ഠിക്കുന്ന ഒരു ആചാരം ആയിരിക്കില്ല തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് അനുഷ്ഠിക്കുന്ന ആചാരം ഇപ്പോൾ ഓരോ ജില്ലകൾ മാറും തോറും ഓരോ രീതിയിലുള്ള ആചാരങ്ങളായിരിക്കും ഓരോ ജില്ലയിലും ഇപ്പോൾ ഞങ്ങളുടെ അവിടെയെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ ആ കുഞ്ഞുങ്ങൾക്ക് തേനും വയമ്പും തേനും വയമ്പും നാവിൽ തൊട്ടു കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് അതുപോലെ ഇരുപത്തേഴിന് നൂലുകെട്ട് എന്ന് പറയുന്ന ഒരു ആചാരം അതായത് കുഞ്ഞിൻ്റെ ആ അച്ഛൻ്റെയും അമ്മയുടെയും മടിയിൽ വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഇളിയിൽ ഒരു കറുത്ത ചരട് കൊണ്ട് കെട്ടുന്ന ഒരാചാരം ഉണ്ട് അതിനുശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണം ഉപയോഗിക്കാവു സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളി ഉപയോഗിക്കാവു എന്നുള്ളത് അതുപോലെ അന്ന് തന്നെയാണ് കുഞ്ഞിൻ്റെ ചെവിയിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും പേര് വിളിക്കുന്നതെന്ന് ഉള്ളൊരു ആചാരം അതുവരെ ആ പേര് പറയില്ല ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ഒരു ചെവിയിൽ പേര് വിളിക്കാം മറ് ചെവിയിൽ വെറ്റില കൊണ്ട് മറയ്ക്കുക എന്ന് പറഞ്ഞ് ഒരാചാരം കൂടെ ഇതിലുണ്ട് അതുപോലെ വരുന്ന മറ്റൊരാചാരമാണ് ആറാം മാസത്തിൽ വരുന്ന ചോറൂണ് ആറ് അല്ലെങ്കിൽ ഏഴാം മാസത്തിൽ കുഞ്ഞിന് കൊടുക്കുന്ന ചോറൂണെന്ന് പറയുന്ന ആചാരം അതുവരെ കുഞ്ഞുങ്ങൾക്ക് അരിയാഹാരം കൊടുക്കാൻ പാടില്ലാന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി അവിടുന്ന് ദൈവത്തിൻ്റെ നടയിൽ നിന്ന് വരുന്ന ഒരു പ്രസാദം വാങ്ങി ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാരും ചേർന്ന് കുഞ്ഞിന് വാരി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ചോറൂണെന്ന് പറയുന്നത് അതിൽ കുറച്ച് എരിവും മധുരവും ഉപ്പും എല്ലാം അതുവരെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ലാന്നുള്ള ഒരു ഇതൊണ്ട് ആ ചോറൂണിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് എരിവോ ഉപ്പും മധുരം എല്ലാം കൊടുക്കാം എന്നാണ് പറയുന്നത് ഈ രണ്ട് ആചാരങ്ങളാണ് ഞങ്ങളുടെ നാട്ടിലെ മെയ്നായിട്ട് നവജാത ശിശുക്കൾക്ക് വരുന്ന ആദ്യ വർഷത്തിൽ വരുന്ന അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ